ആ ഇത് നമ്മളെ ബാലേട്ടൻ്റെ ചായക്കട അല്ലേ ആ നമുക്ക് ഓഫീസിലേക്ക് ഒരു പത്ത് ചായ വേണ്ടിയിരുന്നു ഏതൊക്കെ ഏതൊക്കെ ചായ ഉള്ളത് നമുക്ക് ഒരു അഞ്ച് മസാല ചായയും അഞ്ച് ഗ്രീൻ ടീ ആക്കാം എണ്ണക്കടികൾ എന്തെങ്കിലുമുണ്ടോ നമുക്ക് ഒരു അഞ്ച് സമൂസയും അഞ്ച് മുളക് ബജി എടുക്കാം ആ അങ്ങനത്തെ ഒന്നും വേണ്ട ഇത് നമുക്ക് രാവിലെ മീറ്റിംഗ് ആ ടൈമിൽ സ്നാക്സും ചായ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇത് നമ്മളെ പിന്നെ മഞ്ചേരി ആ കെ എസ് എഫ് ഇ ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഓഫീസ് സ്റ്റാഫ് ഉണ്ടോ അവിടെ കൊണ്ടു വന്നു തരാൻ ആ കണ്ടു ഓഫീസിൻ്റെ അടുക്കൽ എത്തിക്കാൻ പറഞ്ഞാൽ മതി സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്ത് വിടാം കേട്ടോ പൈസ ഇത് മസാല ചായ എന്താണ് ആടെ നല്ല ഫേമസ് ആണല്ലോ നിങ്ങളെ മസാല ചായ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഓഫീസിലുള്ളവർ ഒക്കെ പറയലുണ്ട് അവിടെ നിന്ന് മസാല ചായ കുടിക്കുന്ന ടേസ്റ്റ് പറയലുണ്ട് ആ എന്താണ് അതിൻ്റെ കൂട്ട് എന്താണ്

നിങ്ങളെതായിട്ടുള്ള സ്പെഷ്യൽ കൂട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവും അല്ലേ ആ എന്തായാലും നമുക്ക് ഒരു പത്ത് ചായ ഒരു അഞ്ച് എണ്ണം ഗ്രീൻ ടീ അഞ്ചെണ്ണം മസാലയും കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ ആ ഒരു പത്തര ആവുമ്പഴേക്ക് ഓഫീസിൻ്റെ അവിടേക്ക് എത്തിച്ചാൽ മതീട്ടോ ഓക്കെ എന്നാൽ ശരി